എൻ്റെ പ്രദേശത്ത് ധാരാളമായി കാണുന്നൊരു പക്ഷിയെന്നു പറയുന്നത് കൃഷ്ണ പരുന്താണ് ആ പക്ഷിയെ നിരീക്ഷിച്ചാൽ നമുക്ക് വളരെ അധികം കൗതുകം തോന്നും അത് വട്ടമിട്ട് പറന്ന് അതിനെ നമ്മള് സ്മരിച്ചാൽ കൃത്യമായി നമ്മടെ വീടിനോട് ചുറ്റും അത് ചുറ്റിപ്പറ്റി വന്ന് പറന്ന് നടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെയാണ് പ്രാവുകള് അതും ധാരാളമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പക്ഷി നിരീക്ഷണം അതിനൊക്കെ ഈ പറയുന്ന സമയമുണ്ട് ഒഴിവുണ്ടെങ്കിൽ ചെയ്യുന്ന കാര്യമായതുകൊണ്ട് അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാധാരണക്കാർക്ക് അതിന് വേണ്ട വേണ്ടത്ര സമയം വേണം അതിലുപരി സാമ്പത്തിക ഭദ്രത വേണം അതിലുപരി അതിനൊക്കെ പഠിച്ചു മനസ്സിലാക്കി കൊണ്ട് കാര്യങ്ങളെന്തെങ്കിലും ചെയ്യാനുള്ള കഴിവും പ്രാപ്തിയും ഉണ്ടാവണം